ഹലോ ഹരി ഞാനാണ് സുരേഷ് ഞാൻ ഇങ്ങോട്ടേക്ക് താമസം മാറി നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് വന്നെത്തി കുറച്ചുകൂടെ ഇതാണ് സൗകര്യം തോന്നി കുറച്ചുകൂടെ നിൻ്റെ അടുത്താണ് ഇപ്പോഴ് ഞാൻ താമസിക്കണത് അപ്പം നമ്മുടെ ഇവിടെ ജംഗഷനിലുള്ള ഓഫീസിലെ ഞാൻ നമ്മുടെ ആധാറിൻ്റെ വിശദാംശങ്ങൾ അപ്പ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോഴ് ആ ഓഫീസറ് നല്ലതുപോലെ ചെയ്യുമല്ലോ അല്ലേ ആ ശരി ശരി ആ നീയവിടെ തന്നെ കൊടുത്തത് ഓഹ് അതുശരി ആ ഇപ്പം ഈ ഒരാഴ്ചച്ച ഒരാഴ്ചച്ച എടുത്തോ അതോ ഇവിടെ നിന്ന് നേരത്തെ തന്നെ ചെയ്തു തന്നോ ഇല്ല ഇല്ല പത്ത് പത്ത് പത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പത്ത് ദിവസം കഴിയുമെന്നാണ് പറഞ്ഞത് ആ ശരി ശരി ഓക്കേ അവർ നന്നായിട്ട് ചെയ്യുമല്ലോ ഓക്കേ അപ്പം ശരി ഞാനിപ്പോൾ വിളിക്കാം ഓഹ് ശരി